ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ മൊബൈൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ അത് ഒഴിച്ചു കൂടാന് വയ്യാത്ത ഒരു ഘടകമായി മാറിയിരിക്കുന്നു നമ്മൾ യാത്ര ചെയ്യുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും മറ്റ് ജോലി ചെയ്യുമ്പോഴുമെല്ലാം നമ്മള് മൊബൈൽ നമ്മൾ കരുതുന്നു അപ്പോള് പണ്ടത്തെപ്പോലെ ലാൻഡ് ഫോണ് നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം വച്ചോണ്ടിരുന്ന് അവിടെ അതിന് നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെന്ന് വിളിക്കേണ്ടിയിരുന്നു എന്നാൽ ഇപ്പോള് ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും എവിടെയെല്ലാം നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുന്നു അത് പുതിയ പുതിയ നമ്പര് നമുക്കിതില് കിട്ടുന്ന പുതിയ പുതിയ നമ്പറുകള് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു കൂടാതെ യാത്രയിലും മറ്റു സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പുപയോഗിക്കാൻ സാധിക്കും കൂടാതെ ഒരു മനുഷ്യന് എപ്പോഴാണ് കൂടുതൽ സമയം ബന്ധപ്പെടാനായിട്ട് നേരിൽ കണ്ട് സംസാരിക്കാനും ഈ മൊബൈല് കൊണ്ട് സാധിക്കുന്നു ഇപ്പോള് എന്ത് പറഞ്ഞാലും നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു ഘടകമായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ കേരളത്തില് പകുതിയില് കൂടുതലാള്ക്കാരും പകുതിയില് കൂടുതലാൾക്കാരും ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ ആയിട്ട് സാധിക്കുന്നൊരു വസ്തുവാണ് കൂടാതെ ഇപ്പോഴത്തെ ഈ നേഴ്സറിയില് പഠിക്കുന്ന കുട്ടികളും വരെയും ഇതുപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു പ്രായമുള്ളവർ മാത്രമേ ഇത് കുറേയെങ്കിലും പഠിക്കാൻ സാധിക്കാത്തതുള്ളു അത് എത്രയും നല്ലതൊക്കെയാണ് എന്നാലും അതിനേക്കാൾ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നതുമുണ്ട് എന്നുള്ളതു മനസ്സിലാക്കണം കൂടുതലാൾക്കാര് ഇത് നേരായ മാർഗ്ഗത്തിലൂടെ പ്രവർത്തിപ്പിക്കുകയും അതുപയോഗിക്കുകയും ചെയ്താല് ഏറ്റവും നന്നാണ് പക്ഷേ ഇത് എന്നാ മറ്റ് കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഏറ്റവും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് അതിന് ഇപ്പോൾ ഈ ഉപയോഗം കൊണ്ട് ഏത് കുറ്റകൃത്യങ്ങളും നമക്ക് തെളിയിക്കാൻ സാധിക്കും ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ആണേലും ഉള്ള ആളുമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട് അത് ഏറ്റവും ഇനിയുള്ള കാലങ്ങളിൽ ഇത് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു ഘടകമാണെന്നു മാത്രം പറഞ്ഞു നിർത്തുന്നു